ആ അത് മോളെ ആദ്യം നമ്മള് ഒരു കിലോ ബീഫാണെങ്കില് ചെറിയ പീസാക്കി അത് പീസാക്കി കഴുകി മൂന്ന് വട്ടം അല്ലെങ്കില് നാലു പ്രാവശ്യം കഴുകി വെള്ളം കളഞ്ഞിട്ട് കുക്കറിലിട്ട് നമുക്ക് വേവിക്കണം കുക്കറിലിട്ട് വേവിക്കുമ്പോള് അതിന്റകത്ത് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി വേണമെങ്കില് ഇച്ചിരി മല്ലിപ്പൊടിയുംകൂടി ചേർത്ത് നല്ലപോലെ മിക്സെയ്തിട്ട് കുക്കറടച്ച് നമ്മള് അടുപ്പില്വച്ച് ഒരു നാല് അല്ലെങ്കിൽ മാക്സിമം അഞ്ച് വിസിലടിക്കുക വിസിലടിച്ച് സെറ്റാക്കി അത് താഴെ വയ്ക്കുക തീ ഓഫെയ്തിട്ട് മാറ്റിവച്ചേച്ച് നമുക്ക് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള എന്നായിരുന്നു അ സാധനങ്ങള് ഒരു കിലോ ബീഫെന്ന് പറയുമ്പോള് ഒരു പകുതി തേങ്ങ കൊത്തെടുക്കണം പകുതി തേങ്ങയുടെ അ ചെറിയ പീസാക്കി അരിഞ്ഞ് അത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കാനായിട്ട് അത് എടുക്കണം പിന്നേ സബോള സബോള ഇല്ലെങ്കില് ഉള്ളി ഉണ്ടെങ്കിലും അതാണ് ഒന്നുംകൂടി ടേസ്റ്റ് അത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എല്ലാംകൂടി ആദ്യം എല്ലാമരിഞ്ഞ് മാറ്റിവയ്ക്കുക ഇതെല്ലാമരിഞ്ഞ് അതിനുശേഷം ഗ്യാസേല് നമ്മള് ചട്ടിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ച് തേങ്ങ വറക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും സബോള ആ ചേർക്കുക പിന്നെ കറിവേപ്പില എല്ലാംകൂടി ഇട്ട് നല്ലതുപോലങ്ങോട്ട് നല്ല ഒരു മൂത്ത് വന്നുകഴിയുമ്പോഴേക്കും അതിന്റകത്തോട്ട് നമ്മുടെ എരിവിന് ആവിശ്യത്തിനുള്ള മുളകുപൊടി മസാലപ്പൊടി ബാക്കി എല്ലാ ഐറ്റംസുകളുമിട്ട് നല്ലതുപോലെ മിക്സെയ്തിട്ട് കുക്കറിലുള്ള ഇറച്ചി ചട്ടിയിലോട്ട് പകർത്തുക നല്ലതുപോലേ ഇളക്കി യോജിപ്പിച്ച് വെള്ളമുണ്ടെങ്കില് അതെല്ലാംകൂടി വറ്റിച്ച് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്താല് നല്ല ബീഫ് കറി റെഡിയായി